ഹലോ ആ അതെ അതന്നെ പറഞ്ഞോളു വൺ പ്ലസുക്ക് അൻപതായിരം വരുന്നുണ്ട് ആ വന്നിട്ടുണ്ട് ആ ഉണ്ട് അത് അൻപതായിരം തീർച്ച വരുന്നുണ്ട് അത് ടു ഫിഫ്റ്റീസില് ടു സിക്സ്റ്റി ജി ബി ഉണ്ട് പിന്നെ എയ്റ്റ് സിക്സിറ്റി ജി ബി റാമ് അൻപത് അൻപത്തിമൂന്ന് ജി ബി മെഗാ പിക്സൽ ക്യാമറ ആ പുതിയ ചിപ്പ് വന്നിട്ടുണ്ട് എക്സ്ട്രാ ആ സ്റ്റോറേജ് കൂടുന്നതും അല്ല അതന്നെ ടു ഫിഫ്റ്റി ജി ബിക്ക് അൻപതായിരം ഉർപ്യ അതിൻ്റെ കുറവിന് നാൽപ്പതായിരം ഉർപ്യയുണ്ട് നൂറ്റി പതിനഞ്ച് ജി ബിക്ക് ഓ കണ്ടീഷൻ നല്ലത് പുതിയത് പുതിയത് ആ ഇ എം ഐ ഉണ്ട് നിൻ്റെ ആധാർ കാർഡ് വന്നിട്ട് സബ്മിറ്റാക്കണം ഇ എം ഐയിൽ മാസം മാസം രണ്ടായിരം ഉർപ്യ അടക്കണം മാസാ മാസം ആ ആ രണ്ടായിരം അടക്കണം വൺ പ്ലസിൻ്റെ വേറെ ഇപ്പോൾ ഇല്ല അവൈലബിളായിട്ടുള്ളത് ഇതന്നെ വൺ പ്ലസ് ആ ആ ന്യൂ മോഡൽ എഡിഷൻ അതെ ഫോണ് എല്ലാവർക്കും ഉണ്ട് ഇതേ ഫോണ് നല്ല ഭയങ്കര കസ്റ്റമറിനെല്ലാം നല്ല അഭിപ്രായം ഉണ്ട് ഈ ഫോണിന് ആ എല്ലാവരും എടുത്തോണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഫോണ് വൺ പ്ലസ് ആ ഇ എം ഐയിൽ തെരാ നീ എപ്പോൾ വരുന്ന് ഒരു ആധാർ കാർഡ് നിൻ്റെ എടുത്തോണ്ട് വാ ആ ഇ എം ഐൽ നിൻ്റെ ആധാർ കാർഡ് ആധാർ കാർഡ് വേണം ആധാർ കാർഡ് ഇത് ഫോണ് ആ അന്നന്നെ കിട്ടും അന്നന്നെ ആ അതന്നെ അതന്നെ ആ എപ്പോൾ വരുന്നു നീ ആ ഓക്കെ ഓക്കെ വാ ആ ഷോപ്പ് ഒൻപത് പത്ത് മണി ആവുമ്പോൾ വാ ആ പത്ത് മണിയാവുമ്പം ഷോപ്പ് തുറക്കും ഓക്കെ ഓക്കെ ആ ആധാർ കാർഡ് എടുത്തോ മറക്കണ്ട ആ പാൻ കാർഡ് നിങ്ങൾ എടുത്തോ